ഗെയിമുകളിലെ ആർട്ടിഫിഷൽ ഇൻറ്റലിജൻസിനെ നല്ല രീതിയിലും അതുപോലെത്തന്നെ അതിൻ്റെ മറ്റേ വശത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എ ഐ നല്ലൊരു കാര്യമാണെങ്കിലും അത് ചിലപ്പോഴെങ്കിലും മനുഷ്യരെ കൂടുതൽ അലസതയിലേക്ക് നയിക്കുന്നതുപോലെ തോന്നുന്നു മനുഷ്യർക്ക് ഒരു പ്രവർത്തിയും ചെയ്യാതെ എ അയ്യേക്കൊണ്ട് ബുദ്ധി പ്രവർത്തിപ്പിക്കുന്നൊരു രീതിയിലേക്ക് വരുമോ എന്നും കണ്ടറിയണം പല ഗെയിമുകളും വളരെയധികം ബുദ്ധി ഉപയോഗിച്ച് പ്ലാനിങ്ങോടെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കളിക്കുന്നയാൾ ആ രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് വിജയം നേടുന്നതിനുവേണ്ടി ഇപ്പോൾ ആർട്ടിഫിഷൽ ഇൻറ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിയ ബുദ്ധി കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ വരുമോ എന്നും സംശയിക്കണം അതുപോലെത്തന്നെ ആ കളിക്കുന്നവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്തുമാത്രം എ ഐയ്യുടെ കരങ്ങളിലേക്ക് അല്ലെങ്കിലതിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് നല്ല വശവും ചീത്ത വശവുമുണ്ട് അതുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നവർ ആ തലത്തിൽ അതിനെക്കുറിച്ച് നല്ലൊരു വിവേചനത്തോടെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു പക്ഷേ എന്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽപ്പോ ലും കളിയിൽ കൂടുതൽ വിജയം ലഭിക്കാനായിട്ട് ആർട്ടിഫിഷൽ ഇൻറ്റലിജൻസ് സഹായിക്കും തീർച്ചയായിട്ടും ഒരേസമയത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനായിട്ടുള്ള കഴിവ് എ ഐക്ക് ഉള്ളതുകൊണ്ട് ഗെയിമിംഗ് കുറച്ചുകൂടി ഈസിയാകാനാണ് ചാൻസ് കണ്ടുവരുന്നത്